ഞാൻ ബിൻസി ചേച്ചി ആയിരുന്നല്ലോ അലോണയല്ലേ ആ ഞാനേ ഞാനേ അവിടുന്ന് പാലുമേടിച്ചുകൊണ്ടിരുന്നില്ലേ കുറേ കാലമായിട്ടേ ഇപ്പം ഇപ്പോ ഈയിടെയായിട്ട് കിട്ടുന്ന പാലൊന്നും അത്ര നല്ല പാലല്ലല്ലോന്നെ പാലിന് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടോ നിങ്ങളുടെ അതെന്നാ പറ്റിയെ പാലത്ര ഉം ആ ആ നേരത്തെ നിങ്ങളുടെ മറ്റേ ആ കറുത്ത പശുവിൻ്റെ പാലായിരുന്നു ഞാൻ വെടിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പാൽ നല്ല പാലായിരുന്നു നല്ല കൊഴുപ്പൊക്കെ ഉണ്ടായിരുന്നു ചായ എടുത്താൽ നല്ലതായിരുന്നു ഇപ്പം ഈ കിട്ടുന്ന പാലൊരു വെള്ളംപോലെ ഇരിക്കുന്നു ഒരു കൊഴുപ്പില്ല ആ മ് മ് ആ ഇത് ഇത് വെച്ചൂർ പശുവിൻ്റെ പാലായിരുന്നോ ഈയിടെ എനിക്ക് തന്നതൊക്കെ ആ ഇവിടെ വീട്ടിൽ ചായ കൊടുക്കുമ്പോൾ എല്ലാവരുമെന്നോട് ഇതെന്താ ഇങ്ങനെത്തെ ചായ ഇത് നല്ല പാലായിരുന്നല്ലോ ആ വെള്ളം കൂട്ടിത്തരുന്നതാണോ നല്ല ചായയായിരുന്നു ഇതിനു മുൻപ് കിട്ടിക്കൊണ്ടിരുന്നത് അതെയോ മ് മ് മ് ആ അന്നേരം നിങ്ങൾക്ക് വേറെ പശുക്കളുണ്ടോ കറവയുള്ളത് വേറെ പാൽ തരാൻ പറ്റുമോ ആ എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് പാലൊന്നു മാറിയെടുത്താലോ മറ്റേ പശുവിൻ്റെ പാൽ വേടിക്കാമല്ലോ ആ എന്നാൽ അങ്ങനെ ആ എനിക്ക് എനിക്ക് അലോണയെ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചതിക്കത്തില്ല എന്നറിയാമായിരുന്നു എന്നാലും പാൽ മോശമായിക്കഴിയുമ്പോൾ നമ്മൾ പറയണമല്ലോ അതുകൊണ്ട് വിളിച്ചു ചോദിച്ചതായിരുന്നെ ആ പാക്കറ്റ് പാല് പാക്കറ്റ് പാൽ ഇങ്ങനെ കുടിക്കരുതെന്നൊക്കെയല്ലേ ഇപ്പോൾ പറയുന്നത് നേരത്തെ ഞങ്ങൾ വേടിക്കുമായിരുന്നു സ്ഥിരം ആ പാക്കറ്റ് പാലിനകത്ത് എന്തോ മായം ചേരുന്നുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ബുന്ധിമുട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം എല്ലാത്തിലും വിഷമാണല്ലോ അതുകൊണ്ടാ നമ്മൾ ശരിക്കും നമ്മൾ വീടുകളിൽനിന്ന് പാൽ വേടിച്ചാൽ ഫ്രഷ് ആയിട്ട് കഴിക്കാമല്ലോ നമ്മുടെ പിള്ളേർക്കൊക്കെ വേടിച്ച് ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് വീടുകളിൽനിന്ന് പാൽ വേടിക്കുന്നത് മ്മ് ഇതുവരെ മിൽമയിൽനിന്ന് ഒന്നും കംപ്ലൈന്റ്റ് വന്നിട്ടില്ല അലേ ആ ആ ആ ആ ആ അതെ അതെ അതുകൊണ്ടാണ് ഞങ്ങൾ മിൽമയിലെ വേടിക്കാത്തതും കാരണം പല പശുക്കളുടെ പാൽ വരുന്നതാണല്ലോ മിൽമയിൽ അതെയോ ആഹാ ആ ആവോ ആ അതുകൊണ്ട് വീടുകളിൽനിന്ന് എല്ലാവരും ശ്രദ്ധിച്ച് ഇങ്ങനെ വളർത്തുന്ന പശുക്കളുടെ പുല്ലൊക്കെ കൊടുത്ത് വളർത്തുന്ന നല്ല വീട്ടിലെ വെള്ളവും തീറ്റയൊക്കെ കൊടുക്കുന്നത് ആയതുകൊണ്ട് ആ കച്ചികൊടുത്താലും അങ്ങനെ ഈ അല്ലാതെ ഈ ഫാമുകളിലെ പശുക്കൾക്കാണെങ്കിലും ഒത്തിരി കൈത്തീറ്റയും ഒത്തിരി അതൊക്കെ കൊടുക്കുമ്പോൾ അത് അത്രയും നല്ല പാലായിരിക്കില്ല പക്ഷെ വീടുകളിലെ നമ്മളിങ്ങനെ പറമ്പിൽനിന്ന് പുല്ലൊക്കെ ചെത്തിക്കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് വളർത്തുന്ന പശുക്കളുടെ പാലാ നല്ല പാലായിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഇങ്ങനെത്തെ വേടിക്കുന്നത് ആഹാ ഹ ഹ ഹ ആ പിന്നെ മ് ജേഴ്സി പശുവിന് ആരോഗ്യക്കുറവും രണ്ട് ആ ആ അതുകൊണ്ടാലേ ആ ആ അ അതിങ്ങനെ എനിക്ക് എനിക്ക് അലോണെനെ അറിയാം പക്ഷെ വീട്ടിലെല്ലാവർക്കും അറിയത്തില്ലലോ അതുകൊണ്ടവർക്ക് ആ അതുകുഴപ്പമില്ല എന്നാൽ ആയിക്കോട്ടെ കേട്ടോ ആ ഓക്കേ എന്നാൽ ആ ഓക്കേ എന്നാൽ ശരി